ആ സ്ഥലം എത്തിയല്ലേ എത്രയായി അഞ്ഞൂറ് രൂപ ആ അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷില്ല പൈസ ഇല്ല അപ്പോൾ ഞാൻ നിങ്ങളെ കയ്യിൽ പിന്നെ യു പി ഐ ഫോൺ പേയോ ഗൂഗിൾ പേയോ എന്തെങ്കിലും ഉണ്ടോ ആ ഉണ്ടോ ഫോൺപെ നിങ്ങളെ കയ്യിൽ ഇല്ല അപ്പോൾ എനിക്കിപ്പോൾ എങ്ങനെയാ ഞാൻ ഇപ്പം പൈസ തരുക അല്ല എൻ്റെ കയ്യിൽ പൈസ ആയിട്ട് എടുക്കാൻ ഇല്ല ഫോണിൽ ഫോണിൽ വഴി ഉള്ള ട്രാൻ ഇതേ നടക്കൂ ആ അപ്പം ഞാൻ എങ്ങനെയാ ആ ഭാര്യേൻ്റെ നമ്പറിലോട്ട് ആ അല്ല അല്ല നമ്പറ് പറഞ്ഞുതന്നാൽ മതി കുഴപ്പമില്ല ഞാൻ അതിന്റെയകത്ത് ചെയ്യാം നിങ്ങൾക്ക് പ്രശ്നം ഇല്ലല്ലൊ ഭാര്യേൻ്റെ ഗൂഗിൾ പേയാ അല്ലെ ഗൂഗിൾ പേ ആ ഗൂഗിൾ പേ നമ്പറ് പറഞ്ഞുതന്നാൽ മതി ഏഴ് ഒമ്പത് പൂജ്യം ആറ് ഏഴ് ആ ആ ആ ആ ഈ ഈ ഫോൺ നമ്പറിലോട്ട് ചെയ്യട്ടെ എന്നാൽ ഓ വളരെ സന്തോഷം ആ എന്നാൽ ഈ ഈ ഈ ഫോൺ നമ്പറിൽ ചെയ്യാം നിങ്ങൾക്ക് ഇതെല്ലാം ബുദ്ധിമുട്ടിലല്ലോ ഭാര്യ ഭാര്യേൻ്റെ നമ്പറിലോട്ട് അയക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ ആ ഇതിന് ഈ നമ്പറിൽ ചെയ്യാം ശരി